ഞാൻ കണ്ടെത്തിയ ഒരു ചെറിയ സംരംഭം എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഒരു കൂട്ടായ്മ കൂടി ആയിരുന്ന ഒരു നമ്മുടെ കേരളത്തിൽ ധാരാളം കാണപ്പെടുന്ന ചക്ക അതുകൊണ്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭത്തെ എനിക്ക് കാണുവാൻ ഇടയായി അവിടെ എന്ന് പറയുന്നത് അവർ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നാട്ടു വർത്തമാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ജോലി എന്താണ് ഏറ്റവും രസകരമുള്ളതാക്കുകയും അതുപോലെ തന്നെ അത് ജോലി സ്ഥലമാണെന്ന് അവർക്ക് നമ്മൾ ചെന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ ജോലി സ്ഥലമാണെന്ന് തോന്നില്ല കാരണം എല്ലാവരും അവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ഒരു കുടുംബത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് അവിടെ മാനേജർ എന്നോ അല്ലെന്നുണ്ടെങ്കില് ഒരു വ്യത്യാസമില്ലാതെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അതുപോലെ തന്നെ അതൊരു ചെറിയ സംരംഭം ആണെങ്കിൽ കൂടി അതിൻ്റെ അതിൽ നമ്മൾ ചെന്ന് കണ്ടെത്തിയത് കണ്ടാൽ അതിലെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ഒരു ആ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മളെ മനസിലാക്കി തരിക ഇതൊക്കെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇത് സാധനം വാങ്ങിക്കാതെ നമ്മൾ പോരില്ല കാരണം അവരുടെ ഒരു ഉല്പന്നമെങ്കിലും നമ്മൾ എടുത്തിട്ടേ പോരുകയുള്ളു കാരണം അത് അവ അവരുടെ ആ ഒരു ചെറിയ സംരഭം എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർ വളരെ അധികം എന്താണ് ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് അങ്ങനെ ഇൻട്രസ്റ്റിങ്ങ് ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് സംരഭങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ അധികം പ്രശംസനീയമാണ് അതുപോലുള്ള സംഘടനകൾ സംരംഭങ്ങൾ അത് സമൂഹത്തിനും വളരെ അധികം പ്രയോജനം ചെയ്യുന്നതാണ് മറ്റ് ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ഗുണമുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിനും മനസ് ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വലിയ ഒരു ഔഷധവും കൂടിയാണ് അങ്ങനെ ഒരു സംരഭത്തിൽ കാണുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും ഒക്കെ എനിക്ക് ഇടയായി അത് വളരെ നല്ലൊരു സംരംഭം ആയിരുന്നു അത് അതിൻ്റെ എല്ലാവിധ പ്രവർത്തകർക്കും അത് ഞാൻ അതിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചു അതുപോലെ തന്നെ അത് വീണ്ടും അത് ജനങ്ങളിൽ എത്തട്ടെ അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു